എറണാംകുളം ജില്ലയിൽ പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ് ആലുവ ശിവരാത്രി ഇത് ശിവരാത്രിയോട് അനുബന്ധിച്ച് വരുന്ന ഒരു ആചാരമാണ് ബലിദർപ്പണമാണ് ഈ ആചാരത്തിൻ്റെ പ്രധാനം എറണാംകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ വടക്ക് ഭാഗം മുതലുള്ള എല്ലാ ആൾക്കാരും ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു ദിവസമാണ് ഇത് ജാതിമത ഭേദമന്യേ എല്ലാരും വരുന്ന ഒര് ആചാരമാണ് ശിവരാത്രി എന്ന് പറയുന്നത് കൂടാതെ തന്നെ അതുപോലെ തന്നെ ജില്ലയിൽ മറ്റൊരു ആചാരമാണ് തിരുവാതിര ഇതെന്ന് പറഞ്ഞാൽ സുമംഗഗലിയായിട്ടുള്ള സ്ത്രീകൾ വ്രതമെടുത്ത് ചെയ്യുന്ന ഒരു ആചാരമാണ് ഇത് സ്ത്രീകൾക്ക് യോജിച്ച പുരുഷന്മാരെ കിട്ടാനും മറ്റുള്ളൊരു ആചാരം കൂടിയാണിത് ഇത്ന്ന് പറഞ്ഞാ സ്ത്രീകള് വ്രതവുമെടുത്ത് ചെയ്യുന്ന ഈ ആചാരത്തിൻ്റെ പ്രത്യേകത ഈ സമയങ്ങളിൽ അവർ ഭക്ഷിക്കുന്ന ഭക്ഷണ വസ്തുക്കളെന്ന് പറയുന്നത് പുഴുക്ക് കൂവക്കുറുക്ക് എന്നിവയാണ് ഇവർ ഭക്ഷണമായിട്ട് ഭക്ഷിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ തിരുവാതിര രാത്രിയിൽ സ്ത്രീകൾ കേരളത്തിൻ്റെ തനതായ കസവുമുണ്ടുമുടുത്ത് തിരുവാതിരയും കളിക്കുന്നു ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ജില്ലയുടെ ഐക്യത്തിനും സമൂഹത്തിനും വളരെയേറെ സംഭാവന നൽകുന്ന ഒരു ഇതാണ്